ഹലോ ഹലോ സാറേ ആ എനിക്ക് നല്ല പനിയും ഉണ്ട് തൊണ്ടവേദനയും ഉണ്ട് അപ്പോൾ എനിക്ക് കോവിഡ് ആണ് എന്നാണ് തോന്നുന്നത് ഇല്ല ടെസ്റ്റ് ചെയ്തിട്ടില്ല ആ പുറത്ത് പോയി ഇന്ന് മാർക്കറ്റ് വരെ പോയായിരുന്നു അതെ മാസ്ക് ഉപയോഗിച്ചില്ല ആ ഞാൻ ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത് റൂമിലാണ് ഉള്ളത്

ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴേ ഫുഡ് കഴിക്കുമ്പം ഒരു ഇത് രുചിയൊന്നും കിട്ടുന്നില്ല ടേസ്റ്റ് കിട്ടുന്നില്ല

ടെസ്റ്റ് ചെയ്യാനാണോ ആ ആ

അല്ല ഇത് ഇപ്പോൾ പോസ് പോസിറ്റീവ് ആണെങ്കിൽ എത്ര ദിവസം ക്വാറൻറ്റയിൽ ഇരിക്കേണ്ടി വരും പതിനാല് ദിവസം

പോസിറ്റീവാണ്

ആ അപ്പോൾ പോസിറ്റീവാന്നാ തോന്നുന്നത് മിനിഞ്ഞാന്ന് തുടങ്ങിയതാണ് ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ല വേറെ തൊണ്ടക്ക് മാത്രമേ ആ വേദന ഉള്ളൂ വേറെവിടേം ഇല്ല പിന്നെ ചെറുതായിട്ട് നല്ല പനിയും ഉണ്ട് ഇല്ല പക്ഷേ മേൽ വേദനയൊന്നും ഇല്ല